ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് കാരണം എന്തെന്നു വെച്ചാൽ ഇപ്പം പണ്ടത്തെപ്പോലെ അതായത് പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അതേ സ്ട്രക്ച്ചറുകൾ തന്നെ അതേ രീതികൾ അല്ലെങ്കിൽ അതേ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എല്ലാം ഇപ്പോഴും ഈ കേരളത്തിലടക്കം പല സ്ഥലങ്ങളിലും അതുപോലെ പല സ്റ്റേറ്റുകളിലും ഇപ്പോൾ നമുക്കറിയാം ഗുജറാത്ത് അല്ലെങ്കിൽ എന്താ അരുണാചൽ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഈ ഇപ്പോഴും ഒരു വികസനം ഉണ്ടാവാതെ ഇരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവർ നേരിടുന്ന പ്രശ്നം എന്ന് എന്നു പറയുന്നതുതന്നെ മെയിനായിട്ടും ഡെവലപ്മെൻ്റ് ഇല്ല എന്നുള്ളത് കാര്യം തന്നെയാണ് ഇപ്പോൾ ഇപ്പഴും പല സ്ഥലങ്ങളിലും കരണ്ട് കറണ്ടിൻ്റെ യൂസേജസ് വന്നിട്ടില്ലാത്ത സ്ഥലങ്ങളുണ്ട് അതുപോലെ വെള്ളത്തിൻ്റെ അഭാവം നേരിടുന്ന സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ ഗ്രാമീണ പ്രദേശങ്ങളിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നൊരു കാര്യങ്ങളാണ് അതുപോലെ വാഹന സൗകര്യങ്ങൾ വണ്ടികളില്ലായ്മ ഇതെല്ലാം ഒരുപാടുണ്ട് വണ്ടികൾ വണ്ടികളുടെ സൗകര്യം കുറഞ്ഞുവരുന്നൊരു കാലഘട്ടമാണിന്ന് പിന്നെ അതുപോലെ ഏറ്റവും കൂടുതലായിട്ടും ഫുഡ് അതായത് ഫുഡിൽ ദാരിദ്ര്യം നേരിടുന്നു ഇപ്പോഴും പല സ്ഥലങ്ങളിലും ദാരിദ്രാവസ്ഥയിൽ മുന്നോട്ടുപോകുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ടും ഗ്രാമീണ മേഖലയിലും നേരിടുന്ന പ്രശ്നങ്ങൾ പിന്നെ അതുപോലെ അവരുടെ ആരോഗ്യം ആരോഗ്യ സംരക്ഷണം പരിപാലനം ഇതൊക്കെ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ ഇല്ലാണ്ട് വരുന്നു എപ്പോഴും ഒരു പഴയ രീതിയ്ക്ക് തന്നെയാണ് ഗ്രാമീണമേഖല പ്രാധാന്യം കൊടുക്കുന്നത്